തീർച്ചയായും നമ്മളുടെ സാങ്കേതിക വിദ്യകൾ നമ്മള് ആൾക്കാരോട് ഇടപെടുന്നതും ഇടപെടുന്ന രീതികളും ശൈലികളും മൊത്തത്തില് മാറ്റിമറിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ കണ്ടുവരുമ്പോള് മൊബൈൽ ഫോണും മറ്റാപ്പ്സും ഇൻസ്റ്റഗ്രാമും വാട്സ്പ്പ് ഫേസ്ബുക്ക് ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടിക്കൂടി വരുന്നു പുതിയ പുതിയ രീതികൾ ആൾക്കാരോട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊത്തുവരുന്നു

പണ്ടുകാലത്ത് നമുക്ക് ഫോണും മറ്റും ഇല്ലാത്ത കാലത്ത് ആൾക്കാര് കാര്യങ്ങളറിയിക്കാനോ സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോള് വന്നുവന്ന് അതിനുള്ള സാഹചര്യങ്ങള് നമുക്ക് കൂടുതലായിട്ടൊത്തുവരുന്നു അതിലൂടെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളാവട്ടെ നമ്മളുടെ പല കാര്യങ്ങള് വ്യാപാര വിൽപ്പന കാര്യങ്ങളാവട്ടെ യാത്രകാര്യങ്ങളാവട്ടെ എല്ലാത്തിനും ക്രമീകരണങ്ങളൊരുക്കാനും കാര്യങ്ങൾ ചെയ്യാനും എത്രത്തോളം എളുപ്പമായിട്ടുണ്ട് സാങ്കേതിക വിദ്യകൾ വളർന്നതിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗം ഓരോസം കൂടിക്കൊണ്ട് തന്നെ വരുന്നു അതിൻ്റെ ഗുണങ്ങളുമുണ്ട് ദോഷവശങ്ങളുമുണ്ട് എന്നുറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും കാരണം ഗുണങ്ങൾ വളരെ ലളിതമാണ് ആൾക്കാര് തമ്മിലിടപെടാതെ സംസാരിക്കാൻ പുതിയൊരു അവസരം സാഹചര്യം നമുക്കൊത്ത് കിട്ടേണ്ടിയിരിക്കുന്നു അകൽച്ചകൾ എന്നു പറഞ്ഞൊരു കാര്യം നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് പോയന്ന്ന്നെ നമുക്ക് വേണേ പറയാം ഇപ്പോഴൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ദൂരം ഒരു പ്രശ്നമല്ല ഇപ്പോള് രണ്ട് വ്യക്തികൾ തമ്മിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ എവിടെ ലോകത്തിൻ്റെ അങ്ങേയറ്റത്താവട്ടെ അവർക്ക് തമ്മിൽ നിമിഷങ്ങൾ കൊണ്ട് സംസാരിക്കാനും തൊട്ടുമുന്നിൽ നിൽക്കുന്ന പോലെ നമുക്ക് വീഡിയോ കോള്യ്യുവോ എന്താണു ചെയ്യണ്ടതെന്നുവച്ചാല് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു അകൽച്ചെ നമ്മളിപ്പോള് ഭാവിക്കുന്നേയില്ല എന്തൊരു കാര്യം നമുക്ക് അപ്പോഴത്തെ ലോകത്തിലെവിടെയെങ്കിലും എത്തിക്കണേല് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരാളെ മിസ്സ്യ്യുന്നുണ്ടങ്കിലെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയോ നമുക്കാ ആരുമായിട്ടൊരു ഇടപാടോ നമ്മളിൽ നിന്നും ദൂരമല്ല അത് നമുക്ക് കയ്യിലാക്കാൻ പറ്റ പറ്റാത്തൊരു കാര്യമല്ല നമ്മുടെ വിരൽത്തുമ്പുകളിൽ ആ ആൾ നമുക്ക് സംസാരത്തിൻ്റെ ഇടപെടാനുള്ളൊരു സഹചര്യത്തിൽ ആൾ നിൽക്കുന്നു ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം സോഷ്യൽ മീഡിയ എന്ന കാര്യം സൃഷ്ടിച്ചത് നമ്മുടെ മുന്നിൽ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന ലോകമല്ലാതൊരു വെർച്ച്വൽ ലോകം അല്ലെങ്കിൽ സാങ്കേതികമായൊരു ലോകം സൃഷ്ടിച്ചു അവിടേയും അഭിപ്രായങ്ങളുണ്ട് ആൾക്കാർക്ക് നമ്മൾ ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ശരിക്കും കാണുന്ന ആളല്ല ഓൺലൈൻ കാണുന്നത് അല്ലങ്കിൽ ചാറ്റിൽ കാണുന്നതെന്ന് പറയാറുണ്ട് പലപ്പോഴും പല മുഖം മൂടികൾ അതിനുള്ള സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയേടെ ഓവർ യൂസും അല്ല അധികമായിട്ടുള്ള ഉപയോഗം നമ്മളൊരോ ദിവസം കണ്ടു വരുന്നൊരു കാര്യമാണ് ഒരു ദിവസം ആൾക്കാരിടപെടുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും കൂടുതലായിട്ട് ഫോൺ അഡിക്ഷൻസ് കൂടി വരുന്നൊരു സാഹചര്യം നമ്മള് കണ്ടുവരുന്നു പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ നിന്നും യുവജനങ്ങളുടെ ഇടയിൽ അവർ ഫിസിക്കൽ ഇൻട്രാക്ഷനില് അല്ലെങ്കില് അതായത് നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഇടപെടുകയും അതായത് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ വീടുകളിൽ അല്ലങ്കിൽ ഒതുങ്ങി കൂടി അവരുടെ സോഷ്യൽ മീഡിയേലോ അല്ലെങ്കില് സാങ്കേതിക ഉപകാരണങ്ങളിലോ മുഴുങ്ങിയിരിക്കുന്നൊരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നു സാങ്കേതികമായ കഴിവുകളും സ്കിൽസും ഇക്കാലത്ത് അത്യാവശ്യമാണ് അതില്ലാതെ പറ്റില്ല അതേ സമയം നമ്മൾ ശരിക്കും ഇവിടെ ലോകത്തെ മറന്നും പോകരുത് കാരണം അവിടെയാണ് ശരിക്കുള്ള കാര്യങ്ങളിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മള് ഒരു വ്യക്തിയെ നേരിൽ മുന്നിൽ കണ്ട് സംസാരിക്കാനോ ഇടപെടാനോ ഉള്ള ഒരു കഴിവും ശേഷിയും നഷ്ടപ്പെട്ട് പോകുന്നതെന്നുള്ളൊരു ഭീതി തന്നെയാണ് അത് നമുക്ക് ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ് സൊ അങ്ങനത്തൊരു സാഹചര്യം വരാതെ സൂക്ഷിക്കണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്